ആ അതെയല്ലോ പറയൂ ആ പറഞ്ഞോ ഡോക്ടറാണ് പറയൂ

കുറവില്ല എന്ന് എന്നാണ് തുടങ്ങിയത് ഇത് തണുത്ത വെള്ളം ഐസ്ക്രീം അങ്ങനെയെന്തെങ്കിലും കഴിച്ചിരുന്നോ ആ കുറവില്ല അല്ലേ പാരസെറ്റാമോൾ കഴിച്ചിട്ടും കുറവില്ല ആ മേഡം നിങ്ങളൊന്ന് ജസ്റ്റൊരു രണ്ടിവസം ഫുഡ്ഡിനു ശേഷം മൂന്നു നേരം വച്ച് ഒന്ന് പാരസെറ്റാമോൾ കഴിച്ചു നോക്കൂ എന്നിട്ടും കുറവില്ലെങ്കിൽ നമ്മളുടെ ഹോസ്പിറ്റലിലേക്ക് വരൂ നമുക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇനി വൈറൽ ഫീവർ ആണോ എന്നറിയില്ലല്ലോ സൈഡ് എഫക്ട്സ്സസ് എന്തെങ്കിലുമുണ്ടോ എന്താ ജലദോഷം തുമ്മൽ ആ എന്നാൽ ഒന്ന് ആവി പിടിച്ചോളൂ എന്നിട്ടും കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരൂ കൂടുതൽ നോക്കി നിൽക്കേണ്ട കൂടുതലാവാൻ വേണ്ടി ഇപ്പോഴത്തെ പനിയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതായത് വൈറൽ ഫീവേഴ്സൊക്കെയാണ് ഇപ്പോൾ ഫുൾ നിങ്ങൾ മേടിക്കുന്നത് എത്രയിതിൻ്റെയാണ് ആ അതുതന്നെ കണ്ടിന്യു ചെയ്തോളൂ വീട്ടിൽ വേറെയാർക്കെങ്കിലുമുണ്ടോ പനി എന്തെങ്കിലും ആ അച്ഛനു കുറഞ്ഞോ ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നോ ആണോ ആ അറിയില്ല പിള്ളേർ കുട്ടികളാരെങ്കിലും ഉണ്ടോ അവിടെ ആ അങ്ങനെ കുട്ടികളെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് അധികം പോകണ്ട കാരണം നമുക്ക് അറിയില്ലല്ലോ എന്താണ് പനിയെന്ന് കൂടുതൽ ആവുകയാണെങ്കിൽ നിങ്ങളൊന്നു ഹോസ്പിറ്റലിലേക്ക് വരൂ കൂടുതൽ നേരം നോക്കി നിൽക്കണ്ടാ അതു എന്തെങ്കിലും വിക്സ് ഗുളികയോ എന്തെങ്കിലുമൊക്കെ കഴിച്ചോ ഓക്കേ ഇതെവിടെ നിന്നാണ് വിളിക്കുന്നത് ആ ഓക്കെ ഓക്കെ ഇന്ന് ഇന്നു നിങ്ങളൊന്ന് പാരസെറ്റാമോൾ ഫുഡ്ഡിനു ശേഷം മൂന്നു നേരം ഒന്ന് കഴിച്ചു നോക്കൂ എന്നിട്ട് കുറവില്ലെങ്കിൽ നാളെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോര് നമുക്ക് ബ്ലഡ്ഡ് ടെസ്റ്റ് ചെയ്യാനും അങ്ങനെയെന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ ഉണ്ടാവുമായിരിക്കും എന്തു പനിയാണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം ആ പിന്നെ അധികം ആരുടെ അടുത്തും ഇങ്ങനെ പോയി നിൽക്കുകയോ ആരുടെ അടുത്തും സമ്പർക്കമോ അങ്ങനെയൊന്നും വേണ്ട അതായത് പരമാവധി ആരുടെ അടുത്തും പോവാതെ ഇരിക്കുക ഓക്കെ എന്നാൽ ശരി കുറഞ്ഞില്ലെങ്കിൽ വിളിക്ക്